മലയാള ഭാഷ സംസ്കാരത്തെയും വ്യക്തിത്വത്തെയും എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നു ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു മലയാളികൾ മലയാള ഭാഷ സംസാരിക്കുന്നവരാണ് മലയാളം സംസാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മലയാളികളെന്ന് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു മലയാളി എന്നുള്ളത് വളരെയധികം അഭിമാനകരമായ കാര്യമാണ് കേരളീയർ മലയാളികൾ എന്നറിയപ്പെടുന്നവർ ഇന്ത്യയിലെ തന്നെ എറ്റവും സംസ്കാര സമ്പന്നരും അറിവുള്ളവരുമായ ഒരു ജനതയായിട്ടാണ് പരിഗണിക്കപ്പെടു ഇപ്പം മലയാള ഭാഷയാണ് മലയാളികളെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തുള്ള എല്ലാ മലയാളം ഭാഷ സംസാരിക്കുന്നവരും മലയാളി എന്നുള്ള ആ ഒരു കാര്യത്തിൽ വളരെ അധികം അഭിമാനം കൊള്ളുന്നവരാണ് അത് മലയാള ഭാഷ നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയൊക്കെ ഒരു അടയാളമാണ് തീർച്ചയായിട്ടും മലയാള ഭാഷയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികളെ ഒന്നിപ്പിക്കുന്ന എറ്റവും പ്രധാനപ്പെട്ട ഘടകം മലയാളികൾ വിദ്യാ സമ്പന്നരായതു കൊണ്ടുതന്നെ അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതു മേഖലയിലും ലോകത്തിൻ്റെ ഏത് മേഖലയിലും ചെന്നെത്താനും അവിടെ അവിടെയൊക്കെ വിജയം നേടുവാനും മലയാളികൾക്ക് സാധിച്ചിട്ടുണ്ട് മലയാളഭാഷ അതിന് നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്